ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കി എൻ്റെ ഭാഷയിൽ കാണുന്ന ഒരുപാട് പരുപാടികളുണ്ട് അതായത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവിൽ മനോരമയിൽ കിടിലം കാണും അതുപോലെ തന്നെ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി കാണും പിന്നെ അതുപോലെ തന്നെ ഫ്ലവേർസിൽ പിന്നെ ടോപ്പ് സിംഗർ കാണും പിന്നെ അതുപോലെത്തന്നെ നമുക്ക് ഫ്ലവേർസിൽ സ്റ്റാർ മാജിക് പിന്നെ ഉപ്പും മുളകും അങ്ങനത്തെ പരിപാടികളൊക്കെ കാണും പിന്നെ ഏഷ്യാനെറ്റിൽ ഒരുപാട് സീരിയലും കാര്യങ്ങളും കാണും അതായത് സാന്ത്വനം മൗനരാഗം കുടുംബവിളക്ക് അങ്ങനെയുള്ള ഒരുപാട് സീരിയൽ ഉണ്ടല്ലോ കൂടെവിടെ അങ്ങനെയുള്ള സീരിയലുകളൊക്കെ ഞാൻ ഏഷ്യാനെറ്റിൽ കാണാറുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റ് ഭാഷകളിൽ കാണുന്ന വിനോദ പരിപാടികളുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഞാൻ കൂടുതലും തമിഴാണ് കാണാറ് മലയാളം തമിഴ് കാണും തമിഴ് കാണുകയാണെങ്കിൽ കൂടുതലും പിന്നെ ഇതാണ് കാണുക തമിഴിൽ കെ ടി വി സൺ ടി വി അതായത് മൂവീസ് കാര്യങ്ങളൊക്കെ സൺ മ്യൂസിക്കിലെ പാട്ട് പിന്നെ സൂര്യ മ്യൂസിക്കിലൊക്കെ പാട്ട് ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ടി വി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പാട്ട് ഒരുപാട് പ്രാവശ്യം അതായത് പാട്ട് വെറുതെ ഇങ്ങനെ മാറ്റി ചാനൽ സൺ ടി വി സൺ മ്യൂസിക് അല ഇസൈ അരുവി സൂര്യ മ്യൂസിക് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണും